ഗ്രാമീണ കൃഷിയിൽ പ്രാപ്തരായ തൊഴിലാളികളെ കണ്ടെത്താനും നില നിർത്താനുമുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നു ചോദിച്ചാൽ ഇന്ന് തൊഴിലാളികളെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഗ്രാമീണ കൃഷിയിൽത്തന്നെ പ്രാപ്തരായ തൊഴിലാളികൾ തീരെ കുറവാണെന്ന് തന്നെയാണ് എൻ്റെയൊരഭിപ്രായം പിന്നേ അത് നിലനിർത്താമെന്നു വെച്ചാൽ കൃഷിയോടുള്ള സാമീപ്യവുമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഗ്രാമീണ കൃഷിയിൽ തീരെ അതിനോടുള്ള സാമീപ്യം കുറഞ്ഞ് കാണുന്നൊരു സമയം കൂടിയാണിപ്പോൾ അതിനെ നിർത്താനുള്ളൊരു വെല്ലുവിളികളെന്ന് വെച്ചാൽ കൂലിതന്നെയാണ് അവർക്ക് വേണ്ടത്ര പൈസയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാം പ്രൊഡക്ഷനൊന്നും അതിൻ്റേതായ വാല്യൂ കിട്ടാത്തതുമൊക്കെയാണ് തന്നെയാണ് ഇതിൻ്റെയൊരു വെല്ലുവിളികൾ തീർച്ചയായും കൂലി കൂട്ടിക്കൊടുക്കുന്നതുമായി സംബന്ധിച്ച് കർഷകർക്ക് അതിനുള്ള മെച്ചമുണ്ടോ അതുപോലെത്തന്നെ അവരുടെ പ്രൊഡക്റ്റിന് അതിൻ്റേതായ വാല്യൂ കിട്ടിയാലതും അതിനുള്ളൊരു മെച്ചമായിരിക്കും പിന്നെ നിലവിലുള്ള തൊഴിലാളികളുടെ ദിവസക്കൂലി എത്രയാണെന്ന് ചോദിച്ചാലൊരു അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെയാണ് ചില കർഷകർക്കും പിന്നെ തൊഴിലാളികൾക്കൊക്കെ ഇന്ന് കിട്ടുന്നത്